ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ വളരെ സാദൃശ്യമുണ്ട് അതു പോലെ തന്നെ അതിന്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുമുണ്ട് ദക്ഷിണ ഇന്ത്യയിൽ കൂടുതലും ആളുകൾ അരി അരിയാഹാരമാണ് കഴിക്കുന്നത് അങ്ങോട്ട് ഉത്തരേന്ത്യയിൽ കൂടുതലും ആൾക്കാർ ധാന്യങ്ങളാണ് കഴിക്കുന്നത് കാലാവസ്ഥയിൽ വളരെ വ്യത്യാസമുണ്ട് ദക്ഷിണേന്ത്യയിൽ കൂടുതലും ചൂടാണനുഭവപ്പെടുന്നത് അതേ സമയം ഉത്തരേന്ത്യയിൽ തണുപ്പാണ് കൂടുതലും അതേ സമയം ചൂടുള്ള സ്ഥലങ്ങളുമുണ്ട് രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ വളരെ രൂക്ഷമാണ് ദക്ഷിണ ഇന്ത്യയിൽ ഓ കുഴപ്പമില്ല സാക്ഷരത ദക്ഷിണ ഇന്ത്യയിൽ നൂറ് ശതമാനത്തിൻറ്റെ അടുപ്പിച്ചുണ്ടെന്ന് ആണ് എനിക്ക് കിട്ടിയ അറിവ് ഉത്തര ഇന്ത്യയിലും ആവശ്യത്തിനുണ്ട് അത്രയും എത്തിക്കാൻ പറ്റുന്നില്ലയെന്നാണ് എൻറ്റെയൊരു നിഗമനം ഭൂഘടന വളരെ വ്യത്യാസമുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അവസരങ്ങൾ തുടങ്ങിയവ വളരെ വലുതാണ്